ആളുകള് പട്ടണത്തിലേക്കു പോകുന്നത് കൊണ്ട് തലമുറ പുതുജീവിതത്തിലെ തലമുറക്ക് ഒന്നും സംഭവിക്കുന്നില്ല കാരണം എന്തെന്നുവെച്ചാല് ഇപ്പം പട്ടണ പട്ടണങ്ങളിൽ പോയി പഠിക്കുന്നവരാണെങ്കില് അതിനനുസരിച്ചുള്ള ജീവിതമായിരിക്കും പിന്നീട് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കുടുംബ ജീവിത ആയിരിക്കും അവരും ആഗ്രഹിക്കുന്നത് പിന്നെ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഒരു കല്യാണമൊന്നും കുടുംബ ജീവിതമൊന്നും പങ്ക ജീവിത പങ്കാളിയെയൊന്നും അവർക്കു താല്പര്യമുണ്ടാവില്ല അതുകൊണ്ടു തന്നെ ഇപ്പം നമ്മള് എന്താ ഗ്രാമങ്ങളിൽ താമസിക്കുന്നത് ആണെങ്കില് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ഗ്രാമത്തിലുള്ള ഒരാള് ആയിട്ടാണ് ജീവിതം പങ്കുവെയ്ക്കാൻ ആഗ്രഹിക്കുക ഇപ്പം ഒരു പഠിപ്പും പഠിപ്പല്ല ഒരു കൂടെ ഒരാളാണെങ്കില് ഒരിക്കലും ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയോ അവിടെ അവിടുന്ന് ജീവിത പങ്കാളിയായിട്ട് താമസിക്കാൻ തയ്യാറാവുകയും ചെയ്യില്ല കാരണം എന്തെന്നുവെച്ചാൽ പുതുതലമുറയ്ക്ക് അതൊരു നാണ വ നാണക്കേടാണെന്നുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പത്തെ ആൾക്കാർക്കുള്ളത് അതുകൊണ്ട് അതൊരു അങ്ങനെ എന്തായാലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്